ആ ചേച്ചി വരൂ വീട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എങ്ങനെയുള്ള വീടാണ് നോക്കണേ ഏത് ഭാഗത്ത് ടൗൺ ഏരിയ വേണോ എങ്ങനെയാണ് വീട് വേണ്ടത് ടൗൺ ഏരിയയിലാണല്ലേ വേണ്ടത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ആറ് ഏഴ് പ്രോപ്പർട്ടി നമ്മടേലുള്ളത് ഇപ്പോൾ വീട് ആയിട്ടുള്ളത് വീടും സ്ഥലവുമായിട്ടുള്ളത് ആ ഒരു മൂന്ന് രണ്ട് മൂന്നെണ്ണം ടൗണിലുണ്ട് പിന്നെ ഒരു മൂന്ന് കുറച്ച് വില്ലെജും കുറച്ച് ടൗണൊക്കെ ആയിട്ട് ചെറിയ ഒരു സ്മാൾ ടൗൺ പോലെയുള്ള ഏരിയകൾ ഒക്കെയാണ് സ്ഥലം ഉള്ളത് ഒക്കെ റോഡ് സൈഡ് ഒക്കെയാണ് വീടുകൾ ഒക്കെ ഉള്ളത് ടൗൺ ഏരിയ ആ ആ അല്ല ഇപ്പോൾ ഓക്കേ നമുക്ക് ഇപ്പോൾ ഉള്ള വീടുകളൊക്കെ റോഡ് സൈഡ് തന്നെയാണ് അതായത് അടുത്ത് സ്കൂളുകളൊക്കെ ഉണ്ട് ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലം ഉണ്ട് പിന്നെ എത്ര നിലയ നോക്കുന്നത് വീട് എത്ര നിലയാ വേണ്ടത് ഓക്കേ പഴയ മോഡല് വേണോ അതോ ഇപ്പോഴത്തെ മോഡൽ ട്രെഡിഷണൽ മോഡൽ വേണോ ഓക്കേ അപ്പോൾ പിന്നെ സ്ഥലം എന്തെങ്കിലും നോക്കുന്നുണ്ടോ അല്ല വീടും സ്ഥലം ഓക്കേ മൂന്ന് ബെഡ്റൂംലെ അല്ല സ്ഥലമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചുറ്റും കുറച്ച് സ്ഥലം കൃഷി ചെയ്യാനെന്തെങ്കിലും വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യാനേ ഒരു പത്ത് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലം ഉണ്ട് ഗാർഡനിങ്ങിനും അതെപോലെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാലോ സെൻറ്റ് ഒരു ഇരുപത്തിയഞ്ച് സെൻറ്റ് ഉണ്ട് പിന്നെ ഒരു രണ്ട് നില വീട് തന്നെ പത്ത് സെന്റിലുള്ളത് ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഏതാ വേണ്ടത് ഇരുപത്തിയഞ്ച് സെന്റിൻ്റെ ആകുമ്പോൾ നമുക്കതില് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും കൃഷി ചെയ്യാം പിന്നെ ഗാർഡൻ കാര്യങ്ങൾ അതെപോലെ സ്ഥലവും ഉണ്ടാവും മറ്റേത് ഇടുങ്ങിയ ഒരു വീട് പോലെയാവും ഓക്കേ നമ്മളതില് ഇപ്പോൾ വീടിന് ഇരുപത്തിയഞ്ച് സെന്റുള്ള വീടിന് വില വരുന്നത് താഴെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് മോളിലും മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അതെ അതെ എല്ലാ റൂമിലും അതെ താഴെത്തുള്ള രണ്ട് റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്രൂം ഉള്ളത് മുകളിലുള്ളതിൽ മൂന്ന് അറ്റാച്ച്ഡ് ബാത്രൂം ആണ് പിന്നെ ഒന്ന് പുറത്താണ് വരുന്നത് പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഈ വരുന്ന വീടുകളിൻ്റെ അടുത്തൊക്കെ തന്നെ ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളു പെട്ടെന്ന് പോയി വരാം സ്കൂളും അടുത്ത് തന്നെ എൽപി പിന്നെ ഹയർ സെക്കണ്ടറി സ്കൂളൊക്കെ കുറച്ച് ഒരു ആറ് ഏഴ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ സ്കൂളും ബസ് സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ലൈൻ ബസ് അര മണിക്കൂർ അര മണിക്കൂർ കൂടുമ്പോൾ ബസ് സൗകര്യങ്ങളൊക്കെ ഉള്ള റോഡ് തന്നെയാണ് റോഡ് സൈഡ്ന്ന് പറഞ്ഞാൽ ഹൈവേ അല്ല ന്നാലും രണ്ട് മൂന്ന് ബസുണ്ട് രണ്ട് മൂന്ന് ബസ് ഓടുന്ന റോഡാ റോഡാണ് അപ്പോൾ ഒരര മണിക്കൂർ കൂടുമ്പോ ബസ് ലൈൻ ബസ് ഉണ്ടാകും മെയിൻ റോഡെന്ന് ഇപ്പോൾ കുറച്ച് ഉള്ളോട്ടാണ് മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളില് ബസ് റൂട്ട് തന്നെയാണ് ഹൈവേന്ന് കുറച്ച് ഉള്ളിക്കാണ് അപ്പോൾ ബഡ്ജറ്റ് എത്രയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിനിപ്പോൾ അതെ ഇതിപ്പോൾ ടോട്ടൽ നാല്പത് ലക്ഷം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ആ അപ്പോൾ നമുക്ക് ബാക്കി വീട് ആ വീട് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് ഓ അത് നമുക്ക് അപ്പോൾ അനുസരിച്ച് ഡീൽ ആക്കിയാൽ മതി ജസ്റ്റ് ഞാൻ ഒരു സൂചന തന്നൂന്ന് മാത്രം അപ്പോൾ എന്നാണ് ഫ്രീ ആകുക വീട് കാണാൻ ഓക്കേ ഓക്കേ ആ മതി അപ്പോൾ നമുക്ക് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് വീട് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കേ അല്ലേ ശരി